ആ ഹലോ ആ അതെ അല്ലോ ആ ഓക്കേ ഇത് എവിടെ ആയിരുന്നു സ്ഥലം ഓ കട്ടപ്പന എപ്പോഴത്തേക്കാണ് വേണ്ടത് സൺഡേ സൺഡേയ്ക്കു വേണോ അതോ സാറ്റർഡേയ്ക്ക് ആണോ വേണ്ടത് ആ ഇതിപ്പം ഞങ്ങൾ ഫാമിൽ നിന്നു ഞങ്ങൾ ഡയറക്റ്റായിട്ട് എടുക്കുന്ന പച്ചക്കറികളാണ് തരുന്നത് അപ്പം അതിൻ്റെ ഇപ്പം കിലോ വില എന്നു പറയുന്നത് അൻപത് രൂപയാണ് വില

ആ അതിൽ ഇനി കുറക്കാൻ നമ്മൾ അങ്ങനെ ഒത്തിരി വളങ്ങളൊന്നും ഉപയോഗിക്കുന്നതല്ല എല്ലാം ഫ്രഷ് സാധനങ്ങളാണ് എന്നാലും നോക്കട്ടെ എന്തെങ്കിലും ഒക്കെ ഡിസ്കൗണ്ട് ഒക്കെ തരാം പിന്നെ ഞങ്ങൾക്ക് ഹോം ഡെലിവറി ഉണ്ട് പക്ഷെ ലൊക്കേഷൻ ഒന്ന് അ യച്ചു തരുകയാണെങ്കിൽ ഒരു ഉപകാരം ആയിരുന്നു അല്ലെങ്കിൽ പിന്നെ ആ ഓക്കെ ഓക്കെ അപ്പം നമുക്ക് ഇത് ഒന്നു കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് പൈസ കിട്ടുവാരുന്നെങ്കി കുറച്ചൂടെ എളുപ്പമായിരുന്നു ആ ഓക്കേ ഈ നമ്പറിൽ തന്നെ ചെയ്താൽ മതി അപ്പം അഡ്വാൻസ് കിട്ടുവാണേൽ നമുക്ക് ഓർഡർ കൺഫേം ചെയ്യാമായിരുന്നു അപ്പം നമുക്ക് പണ്ട് ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് ഇങ്ങനെ വിളിച്ചു കൺഫേം ചെയ്യും എന്നിട്ട് പിന്നെ ആളെ കാണത്തില്ല അതുകൊണ്ടാണ് കേട്ടോ ഒരു അഡ്വാൻസ് വാങ്ങിക്കുന്നത് ആ ആണോ ആ ആ അത് കുഴപ്പമില്ല ഒരു ഇരുന്നൂറു രൂപ വല്ലതും ഗൂഗിളിൽ ചെയ്താൽ മതിയെ ആ അപ്പം ഒരു മിനിറ്റ് ഞാൻ ഒന്നു എഴുതിക്കോട്ടെ എഴുതിവച്ചോട്ടെ ഇത് പേര് എന്തായിരുന്നു ജയലക്ഷ്മി സ്ഥലം ഇരുപത് കിലോ അല്ലേ ആ അഡ്രസ്സും ബാക്കി കാര്യങ്ങക്കളുമൊക്കെ വാട്ട്സ്ആപ്പ് ചെയ്താലും മതി ആ അത് ആ ഞങ്ങൾ ശ്രമിക്കാം ഞങ്ങൾ ഒന്നു നോക്കട്ടെ അതിനനുസരിച്ച് കേരളത്തിൻ്റെ രീതിക്ക് ചെയ്യാം ആ അപ്പോൾ ഞാൻ എന്നാൽ ശനിയാഴ്ചത്തേക്ക് വിളിച്ചേക്കാം വിളിച്ചിട്ട് ഞങ്ങൾ സാധനം കയറ്റി വിടത്തൊള്ളേ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ആ ഓക്കെ ഓക്കെ വിളിച്ചാൽ മതി ആ ഓക്കെ ശരി എങ്കിൽ ഓക്കെ ഓക്കെ